ആ വരൂ ഉണ്ണീ ആ ഏത് ടൈപ്പ് തെങ്ങാണ് വേണ്ടത് നമ്മൾ ഇപ്പം നാടൻ തെങ്ങ് പിന്നെ ടി ഇൻ്റു ടി വരുന്നുണ്ട് പിന്നെ ചെന്തെങ്ങ് വരുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അപ്പം ഇതിൽ ഏതാണ് വേണ്ടത് ആ അത് ആവുമ്പോൾ നാല് വച്ച് നാല് അഞ്ച് കൊല്ലം ആവുമ്പോഴേക്ക് നമുക്ക് കായ്ക്കാൻ തുടങ്ങും വീട്ടില് മുമ്പ് തെങ്ങ് വച്ച പരിചയമൊക്ക ഉണ്ടോ ആ ഓക്കെ ഇപ്പം നമ്മൾ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ ആയിട്ട് പിന്നെ വയ്ക്കണ സമയത്ത് ആദ്യം കുറച്ച് മണ്ണിൽ വളം അപ്പോൾ ചാണകം അതുപോലെ പിന്നെ നമ്മുടെ ഈ ചാരമൊക്കെ ഇല്ലെ തീ കത്തിച്ചത് ചാരം അത് ഒക്കെ ഇട്ട് രണ്ട് ദിവസം മണ്ണ് ഒന്ന് ഒരു അഞ്ച് കഞ്ച് അടി അധികം അഞ്ച് അടിയിൽ അല്ലെങ്കിൽ രണ്ടര അടിയിലൊക്കെയെ ഒരു കുഴി എടുത്തിട്ട് ആദ്യം ഈ മണ്ണൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ ചാണകവും കുറച്ച് വളവും എല്ലാംകൂടി കൂട്ടി അത് മിക്സ് ചെയ്ത് ഇടണം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒന്ന് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ തൈ വയ്ക്കാം അപ്പം ഈ തെങ്ങിൻ തൈ വയ്ക്കണ സമയത്ത് ഈ മറ്റെ ഇപ്പം ചെയ്ത വളം ഈ ഇതിന് മുമ്പ് വേണ്ട വേറെ കുറച്ച് ഫ്രഷ് മണ്ണ് എടുത്തിട്ട് ഇതിന് സെറ്റ് ചെയ്ത് വയ്ക്കാം അതായത് തൈയിനോട് ചേർത്ത് വയ്ക്കാം എന്നിട്ട് ഈ മണ്ണിൻ്റ ഗ്യാപ്പ് ഫിൽ ചെയ്താൽമതി ആ പിന്നെ തെങ്ങിൻ തൈ അതു വച്ച് കയിഞ്ഞാൽ ഒന്ന് നാല് സൈഡിലേക്കും ഒന്ന് ഒര് കാല് എന്തെങ്കിലും വച്ചിട്ട് ഇങ്ങന കെട്ടി വയ്ക്കാം അതായത് കാറ്റ് പിടിക്കാണ്ടിരിക്കാൻ വച്ചിട്ട് അല്ലെ ഉള്ളൂ വേര് ഇറങ്ങണ സമയം വരെ കാറ്റടിച്ച് വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ആ പിന്നെ എന്തായാലും നമുക്ക് ഒരു ആ കുറച്ച് ദിവസം ഒര് ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴേയ്ക്കും നമുക്ക് അറിയാം അത് പിടിച്ചോ ഇല്ലയോയെന്ന് അറിയാൻ പറ്റും ആ പുതിയ പട്ടയും കാര്യങ്ങളൊക്ക വന്നു സെറ്റ് ആയിക്കോളും ആ നമ്മൾ ഇവിടെ നിന്ന് കുറെ സ്ഥലത്തേയ്ക്ക് ഒക്കെ തെങ്ങിൻ തൈ ഒക്കെ കൊടുക്കാറുള്ളതാണ് ഇതുവരെ ആരും നെഗറ്റീവ് ആയിട്ട് ഒരു ഇത് പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് തെങ്ങിൻ തൈ വന്നിട്ട് നമ്മൾ മറ്റെ ഒരു രണ്ട് എണ്ണം ആണ് രണ്ട് എണ്ണത്തിന് നൂറ്റമ്പത് അപ്പോഴ് നനക്കുമ്പം നല്ലോണം വെള്ളം നനച്ചു കൊടുക്കണം ഡെയ്ലി ഒരു ദിവസം ഒര് ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ മിനിമം വെള്ളം തെങ്ങിൻ തൈയ്ക്ക് ആവശ്യം വരും അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു അമ്പത് ലിറ്റർ ഒക്കെ വെള്ളം ഒരു ദിവസം എന്തായാലും വേണം അത്ര വലിപ്പം വരില്ല ആ നമ്മളെ രണ്ടാളെ പൊക്കത്തിന് ഉള്ള ഹൈറ്റെ വരൂള്ളൂ ആ അത്ര വലിയ ഹൈറ്റ് ഒന്നും വരില്ല ആ നാടൻ നല്ല ഹൈറ്റ് വരും ആ നാടൻ നല്ല ഹൈറ്റ് ഇത് അത്ര ഹൈറ്റ് ഒന്നും വരില്ല ആ പിന്നെ നമുക്ക് നല്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ ഒരു കുലയിൽ ഒരു പത്ത് മുപ്പത് തേങ്ങ ഒക്കെ കിട്ടും നല്ല വലിപ്പം ഉള്ളത് മുപ്പത് മുപ്പത്തഞ്ച് തേങ്ങ വരെ കിട്ടും തേങ്ങ നല്ല ആ തേങ്ങ നല്ല വലിപ്പം ഉണ്ടാവും നല്ല ഉൾക്കാമ്പ് ഉള്ള തേങ്ങ ആണ് അപ്പം അതിന് അത്ര കംപ്ലയിൻ്റൊന്നും വരില്ല ഒര് ഒരു കിലോ ഒര് ഒരു കിലോൻ്റെ അടുത്ത് മുക്കാൽ കിലോ ഒക്കെ വരും ഒരു തേങ്ങ

ആ ആ ഓക്കെ ആ ആ ഓക്കെ അപ്പം ഇത് വയ്ക്കുമ്പം കറക്ട് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം അല്ലായെന്നു പറഞ്ഞാൽ പിന്നെ കേട് വന്നുയെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരാൻ പാടില്ല

ശരി ശരി ശരി